മാധ്യമ സ്വാതന്ത്ര്യം വളരെ നല്ലതാണ് എന്നാൽ അതിനൊരു നിയന്ത്രണമുണ്ടാകുന്നത് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതിൽ നിന്നും ഒരു സമൂഹത്തിന് നല്ല വാർത്ത കൊടുക്കുവാൻ ഇടയാകും കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഇന്ന് കൂടിപ്പോയോ എന്നുള്ള ഒരഭിപ്രായം ഉണ്ട്

വാർത്തകളുടെ അതിപ്രസരണം അതുപോലെ വാർത്തകൾ ഇല്ലാത്തത് വാർത്തകൾ ഉണ്ടാക്കുവാനുള്ള മാധ്യമങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം അത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനും തെറ്റായ വിവരങ്ങൾ സമൂഹത്തിന് നൽകുവാനും ഇടയായിത്തീരും അതുകൊണ്ട് അതിന് സ്വാതന്ത്ര്യം നല്ലതാണ് മാധ്യമ സ്വാതന്ത്ര്യം നല്ലതാണ് എങ്കിൽ പോലും അതൊരു നിയന്ത്രണ വിധേയമാണെങ്കിൽ എല്ലാറ്റിനുമുപരി നല്ല വാർത്തകൾ അതായത് ശരിയായ വാർത്തകൾ അത് സമൂഹത്തിന് ലഭിക്കുവാൻ ഇടയായിത്തീരും